കേരളത്തിൻ്റെ പ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് ഓരോ കൃഷി ഇനങ്ങൾ അല്ലെങ്കിൽ ഓരോ പുഷ്പങ്ങൾ ഓരോ സസ്യജാല സസ്യ ജാലങ്ങൾക്കും സ അത് നടുന്നതിനും അതിൻ്റെ വിളവെടുക്കുന്നതിനും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു സമയം ഉണ്ട് അത് കേരളത്തിൽ നമ്മുടെ മഴ പെയ്യുന്നതിനും ഇവിടെ കൂടുതൽ ചൂടുള്ള സമയം ഇങ്ങനെ ഓരോ സമയങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ പല പുഷ്പങ്ങളും അതുപോലെ തന്നെ മറ്റ് കൃഷി വിഭവങ്ങളും ഒക്കെ നമ്മൾ വെച്ചുപിടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും മഴയുള്ള സമയങ്ങളിൽ വയ്ക്കുന്ന ഫലങ്ങൾ ഉണ്ട് പാ പല വൃക്ഷങ്ങളും സസ്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ചൂടുള്ള സമയത്ത് വയ്ക്കുന്നതുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കൃഷി വിഭാഗങ്ങളുണ്ട് അത് നമ്മുടെ അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്പോഴത്തെ സമയത്തിനും അനുസരിച്ചിട്ടാണ് നമ്മൾ അത് എപ്പം വയ്ക്കണം എങ്ങനെ നടണം എന്ന് തീരുമാനിക്കുന്നത് ചേന കാച്ചിൽ അതുപോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒക്കെ നമ്മൾ സാധാരണയായിട്ട് കുംഭമാസത്തിലാണ് വയ്ക്കാറുള്ളത് അതുപോലെ മലയാള മാസമായ കുംഭം അതിലാണ് നമ്മൾ വയ്ക്കാറുള്ളത് അങ്ങനെ ഓരോ വിഭവങ്ങൾക്കും അത് നടുന്നതിനും ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് നട്ടു പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അത് വലുതാവുകയും നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ കയറുന്ന ആ പ്രധാനപ്പെട്ട ഒരു കൃഷി വിഭവം ആണ് നെല്ല് നെല്ല് വിതയ്ക്കു നെല്ല് വിതയ്ക്കുന്നതിനും ഒരു സമയമുണ്ട് അത് കൊയ്തെടുക്കുന്നതിനും കൃത്യമായിട്ട് തന്നെയുള്ള സമയമുണ്ട് ഈ സമയത്ത് തന്നെ വിത്ത് വിതയ്ക്കുകയും കൊയ്തെടുക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടില്ല മഴ സമയമാണെങ്കിൽ നെല്ല് നശിച്ചു പോകുന്നതിനും അതുവഴി നമുക്ക് കൃഷി നാശം വരുന്നതിനും നമുക്ക് തന്നെ നഷ്ടം സംഭവിക്കുന്നതിനും ഒക്കെ കാരണമാവും അപ്പം അതുപോലെയുള്ള പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് എപ്പോൾ ഇതുപോലെയുള്ള ഫലങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്